നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് പേരുകൾ കര കരകൗശലം മൺപാത്രം മരപ്പണി തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളുടെ അതായത് ഈ കേരളം പോലത്തുള്ള കൊച്ചു നാടുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു ഇതാണ് മൺപാത്ര നിർമ്മാണം അതായത് നമ്മൾ മീൻ കറിയൊക്കെ വെക്കുന്ന ചട്ടികൾ കുടങ്ങൾ പണ്ട് കാലത്ത് കൂടുതൽ ഉപയോഗിച്ചിരുന്ന സ്റ്റീലുകളെക്കാളും കൂടുതൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് മൺപാത്രങ്ങളാണ് അതാണ് ഏറ്റവും നല്ലതായിട്ട് ഭക്ഷണമുണ്ടാക്കാൻ ഏറ്റവും നല്ലത് നമ്മളുടെ മൺപാത്രങ്ങളാണ് അപ്പം ആ നിർമ്മാണത്തിനെല്ലാം എന്താ പറയുക നല്ലൊരു പങ്കുണ്ട് അതുപോലെ തന്നെ മരപ്പണി എന്താ വീടുകളിൽ എന്താ മരപ്പണിക്കാർ വന്ന് പണിയെടുക്കുന്നു ജനലുകൾ വാതിലുകൾ എല്ലാം പണിയുന്നു അതെല്ലാം ഒരു നല്ലൊരു കാലമായിരുന്നു അടിസ്ഥാനമായിട്ട് തൊഴിലുകൾ എന്നിവയിൽ ഏർപ്പെടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ എന്താ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലാളുകൾ ഏർപ്പെട്ട് ഏർപ്പെടുന്ന തൊഴിലുകൾ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെത്തെ കൂടുതലാളുകൾ എന്താണ് ഉപയോഗിക്കുന്ന അവസരങ്ങൾ ഇങ്ങനെത്തെയുള്ള അവസരങ്ങളാണ് കൂടുതലാളുകൾ ഏർപ്പെടുന്നത്